നമ്മൾ പുറത്തായിരിക്കുമ്പോൾ നമ്മുടെ വീട് നിരീക്ഷിക്കാൻ നമ്മൾ ഹോം സെക്യൂരിറ്റി സിസ്റ്റവും ക്യാമറയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ക്യാമറ വെക്കുന്നതു കൊണ്ടാണ് ഏറ്റവും നല്ലത് ഹോം സെക്യൂരിറ്റിയെ വെച്ചാൽ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റിമാരല്ലേ ഫുഡ് കഴിച്ചാലൊക്കെ അവർ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ നമ് അവരവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും ആ സമയത്ത് എന്തെങ്കിലും കുട്ടികളോ കുട്ടികളൊക്കെ പുറത്തോട്ടൊക്കെ പോയാൽ തന്നെ അവർ അത് കാണാറൊന്നും ഇല്ല എന്നാ ക്യാമറയാണെങ്കിൽ നമുക്ക് കുട്ടികൾ എവിടേക്ക് പോകുകയാണെങ്കിലും എങ്ങോട്ട് റോഡിലേക്ക് ഇറങ്ങുകയാണ് ചെറിയ കുട്ടികളാണേ തന്നെ വീട്ടിലാരും കണ്ട് കുട്ടിയെ നോക്കിയിട്ടില്ലെങ്കിലോ കണ്ടിട്ടില്ലെങ്കിലോ കുട്ടി ഫ്ളാറ്റിൽ നിന്നാണെങ്കിലും നമ്മളുടെ വീട്ടിൽ നിന്നാണെങ്കിലും ഇറങ്ങി താഴോട്ട് വന്ന് റോഡിലേക്ക് ഇറങ്ങി പോകുകയാണ് ചെയ്യുന്നത് ഇപ്പം രണ്ട് ദിവസം മുൻപുണ്ടായ ഒരു സംഭവമാണ് ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയത് വീട്ടിലുള്ള മാതാപിതാക്കളൊന്നും കണ്ടില്ല അങ്ങനെ അതിലേ പോയൊരു ടാക്സിലെ ഒരു കാറിലെ ഒരു ചെറുപ്പക്കാരനാണ് ആ കുട്ടിയെ എടുത്തു വീട്ടിലേക്ക് കൊണ്ടുവന്നു തന്നത് ആ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് ക്യാമറ വെക്കേണ്ടത് എല്ലാ വീട്ടിലും ക്യാമറ വെക്കണം എന്നാണ് ഞാൻ പറയുന്നത് എന്നാൽ പിന്നെ ആര് പുറത്തേക്ക് പോയാലും ഒരു കള്ളൻ വീട്ടിലേക്ക് വന്നാലും നമുക്ക് ആ ക്യാമറയിലൂടെ കാണാനൊക്കെ സാധിക്കും അതു കൊണ്ട് തന്നെ നല്ല കാര്യമാണ് ഈ ക്യാമറ വെക്കുന്നത്